ആ ഓഷന് കാര് കെയര് സെന്ററാണോ ആ സാറേ എനിക്ക് അത്യാവശ്യമായിട്ട് ചെന്നൈ വരെ പോകാനുണ്ട് എന്നെ ഒരു പത്തരയാവുമ്പം ട്രിവാണ്ട്രം എയർപോട്ടില് കൊണ്ടെത്തിക്കാന് പറ്റുമോ നിങ്ങളെക്കൊണ്ട് ആ ഓക്കെ ഓക്കെ പത്തരയായി ഇപ്പോൾ ഇപ്പോൾത്തന്നെ ഏകദേശം ഒമ്പതര കഴിഞ്ഞു ഒരു മണിക്കൂര് സമയമേ ഉള്ളൂ നിങ്ങൾ ഉത്തരവാദിത്ത്വത്തോടുകൂടി അത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചോട്ടെ ആ ഓക്കെ ഓക്കെ സാറേ ടേങ്ക് യു